എൻ്റെ വര മെച്ചപ്പെടുത്താൻ വേണ്ടീട്ട് ഞാന് എന്നെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ സഹായിച്ചതിന് എനിക്ക് വരക്കാനറിയുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരെന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പം അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുറെ ട്രിക്കുകളുണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ ലീക്കായിട്ട് പോവാതിരിക്കാൻ നമ്മള് സൈഡില് നമ്മള് ടേപ്പ് ഒട്ടിക്കാറുണ്ട് നമ്മളത് വരച്ച് കഴിഞ്ഞ് നമ്മളെടുക്കുന്ന സമയത്ത് നമുക്കത് കുറച്ച് നീറ്റായിട്ട് കിട്ടും പിന്നെ നമ്മള് ഓരോന്നിനും ഓരോ രീതീയിലേക്കും വരയ്ക്കാൻ നമ്മള് ഓരോ പെൻസിലുകളാണ് ഉപയോഗിക്കുക നമ്മളിപ്പം കണ്ണിന് വരയ്ക്കുന്ന പെൻസിലല്ല നമ്മള് മുടിയില് മുടിയൊക്കെ വരക്കാനായി നമ്മള് ഉപയോഗിക്കുന്നത് അപ്പം ഷാർപ്പ് ഷാർപ്പായിട്ടുള്ളതും ഷാർപ്പ്ലെസ്സായിട്ടുള്ള ഒരുപാട് പെൻസിലുകള് അവൈലബിളാണ് ഇപ്പം പെൻസിലുകള് മാറ്റി മാറ്റി മാറ്റി വരക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്ററെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് കുറെ ഫ്രണ്ട്സുകള് അതുപോല തന്നെ നമ്മള് നമ്മള് കളറൊക്കെ കൊടുക്കുന്ന സമയത്ത് ഓരോ കളറുകളും ഏതാണ് എത് കളറാണ് കൊടുത്ത ബെറ്ററായിരിക്കുന്നെന്ന് നമ്മളാദ്യം മാറ്റി ചെയ്തു കൊടുത്തതിനു ശേഷമാണ് നമ്മളെന്ത് ചെയ്യാ നമ്മളവിടെ കൊടുക്കേണ്ടത് അപ്പൊ നമ്മള് എപ്പോഴും ലൈറ്റ് ആയിട്ട് കളറ് കൊടുത്ത് തുടങ്ങി പിന്നെ അത് ടാർക്കിലേക്ക് പോകുന്നതാണ് നല്ലത് അതൊരു ട്രിക്കാണ് കാരണം ആൾറെഡി ഡാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റാക്കണെന്ന് വിചാരിച്ചാൽ നടക്കില്ല നമ്മള് ആദ്യമേ ഇതിനെ കുറച്ച് ലൈറ്റായിട്ടൊക്കെ കളറു കൊടുത്ത് കൊടുക്കുക പിന്നെ എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങൊളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട് ഡ്രോയിങ്ങ് ഫ്രിക്ഷൻന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് ഞാനാ ചാനലില് പിന്നെ കേറീട്ട് നോക്കാറുണ്ട് അവരിങ്ങനെ ട്രിക്കുകളൊക്കെ പറഞ്ഞു തരാറുണ്ട് ഈസിയായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ട്രിക്കുകളൊക്കെ അതാണ് ഞാന് ഓൺലിനായിട്ട് നോക്കുന്നത് എന്ന് പറയുന്നേ